ഞങ്ങളുടെ പ്രദേശത്തെ പരമ്പരാഗത കളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടു നിൽക്കുന്നത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് എങ്ങനെയാ കളിക്കുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ടോസ്സ് ഇടും ടോസ്സ് ഇട്ടിട്ടു അതിൽ ടോസ്സ് കിട്ടുന്നവർക്ക് ബാറ്റിങ്ങോ അല്ലെങ്കിൽ ബോളിങ്ങോ ചൂസ് ചെയ്യാൻ പറ്റും ദെൻ ബോളിങ് ചൂസ് ചെയ്യുന്നവർ ആണെങ്കിൽ ഫസ്റ്റ് പ്ലേ തുടങ്ങുമ്പം ബോളെറിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് പിന്നെ ഫുട്ബോൾ ഇവിടുത്തെ ഒരു ലേറ്റസ്റ്റ് പ്ലേയാണ് അതും പിന്നെ ഷട്ടിൽ ബാറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് പ്ലേയ്സ്